ഇപ്പം മത്സ്യബന്ധനത്തിന് നമ്മുടെ നാട്ടിൽ സാധാരണ ഇപ്പം കടൽ തീരത്തൊക്കെ ജീവിക്കുന്നവർ തോണി അല്ലെങ്കിൽ വള്ളം വള്ളം എന്നാണ് പറയുക വള്ളം തുഴഞ്ഞു പോയി ട്ട് നല്ല പരിചയമുള്ള ആൾക്കാർ അത് പോയിട്ട് എടുക്കൽ ഉണ്ട് നമുക്കൊക്കെ മെയിനായിട്ട് ഇപ്പം വള്ളം അല്ലെങ്കിൽ തോണി അങ്ങനെ പോകുന്നുണ്ട് പിന്നെ വലിയ വലിയ അതായത് മാർക്കറ്റിലൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു കൊട്ട മീനാണ് വേണമെങ്കിൽ വേണം എന്നെങ്കിൽ നമ്മൾ ഷിപ്പിൽ വലിയ ഷിപ്പുകൾ ഉണ്ട് അതിനായിട്ട് പ്രത്യേകം അതിൽ പോയിട്ട് കുറച്ചു നാളൊക്കെ പോയി രണ്ട് മൂന്ന് ദിവസമൊക്കെ പോയി വാങ്ങലാണ് പതിവ് ഇപ്പം സാധാരണ ഒരു കുറച്ചു അല്ലെങ്കിൽ വലയിട്ട് പിടി ചെറുതായിട്ട് ഒരാൾ പോയിട്ട് വല ഇട്ടു പിടിക്കണമെങ്കിൽ നമ്മൾ വള്ളം അല്ലെങ്കിൽ തോണിയാണ് കൂടുതലായിട്ട് എന്താണ് കണ്ടു വന്നിരിക്കുന്നത് ഇവിടെ അതാണ് ചെയ്യുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഉള്ളത് തോണി അല്ലെങ്കിൽ വള്ളമാണ് ഉള്ളത് അതിൽ പോയിട്ട് നമ്മൾ പോയി പിടിക്കലാണ് അതിൽ അത്ര കിട്ടുവൊന്നുമില്ല ഒരു ചെറിയ വള്ളം അല്ലെങ്കിൽ ചെറിയ തോണി കൊള്ളാവുന്ന ഒരു മീനെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ബോട്ടൊക്കെ വലിയ വലിയ ചെറിയ ചെറിയ ചെറിയ ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഉണ്ട് എന്നാലും വലിയ ഷിപ്പ് അല്ലെങ്കിൽ വലിയ വലിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ കുറേ നമുക്ക് പിടിക്കാം അപ്പം അതിന് കുറേ അതിന് അനുസരിച്ചു കുറേ ആൾക്കാർ ഉണ്ടാവും